ഇപ്പം പരമ്പരാഗത നൃത്തരൂപങ്ങൾക്ക് ഇന്ത്യൻ സംസ്കാരത്തിൽ വളരെ പ്രാധാന്യമുണ്ട് അപ്പോൾ എല്ലാ സംസ്കാരത്തിനും അവരുടേതായിട്ടുള്ള ഓരോ നൃത്തരൂപങ്ങളും കാര്യങ്ങളും ഇന്നുണ്ട് ഇപ്പോൾ ഇപ്പോൾ നൃത്തരൂപങ്ങൾ പഠിക്കാനാണെങ്കിൽ തന്നെ ഇപ്പോൾ മോഹിനിയാട്ടം ആണെങ്കിലും പിന്നെ കഥകളി കൂടിയാട്ടം നങ്ങ്യാർകൂത്തും ചാക്ക്യാർക്കൂത്തും ഇങ്ങനെ ഒരുപാട് നൃത്തരൂപങ്ങൾ നമക്ക് ചുറ്റുമുണ്ടല്ലോ ഇപ്പം കലോത്സവങ്ങളാണെന്നുണ്ടെങ്കിലും സ്കൂളുകളിൽ കലോത്സവത്തിലൊക്കെ അതിനായിട്ട് പ്രത്യേക സൗകര്യങ്ങളാണ് ഒരുക്കി കൊടുക്കുന്നത് ഇപ്പം നമുക്ക് പഠിക്കാൻ ഇഷ്ടമുള്ള കുട്ടികളാണ് എന്നുണ്ടെങ്കിൽ അത് പഠിപ്പിക്കാനും അതിന് സാറ് വന്ന് പഠിക്കുന്നു അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇന്ന് നമ്മുടെ ചുറ്റും കാണുന്നതും കേൾക്കുന്നതും ഒക്കെയാണ് ഇപ്പോൾ ഇപ്പം നമ്മൾ കലാമണ്ഡലത്തിലാണ് കലാമണ്ഡലത്തിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു സബ്ജെക്റ്റായിട്ട് നമ്മളെ ഒരു നൃത്തമൊരു സബ്ജെക്റ്റായിട്ട് പഠിക്കുന്ന എത്രയോ പേരുണ്ട് ഇപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് അതിഷ്ടപ്പെട്ടിട്ട് അതിൽ ഇറങ്ങുന്ന ഒരുപാട് പേരുണ്ട് ഇപ്പം പുറത്തു നിന്നാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കഥകളിയാണെങ്കിലും മോഹിനിയാട്ടമാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ പുറത്ത് നിന്ന് വരുന്ന ആളുകൾക്ക് അതൊക്കെ കാണാനിഷ്ടപെട്ടിട്ട് അത് പഠിയ്ക്കാൻ വേണ്ടിയിട്ട് താൽപര്യം തോന്നിയിട്ട് ഇവിടെ വന്ന് നിന്ന് പഠിക്കുന്നു അത് പഠിച്ചിട്ട് പോകണം എന്ന് ഭയങ്കര ആഗ്രഹം തോന്നിയിട്ട് വരുന്നവരാണ് അതൊക്കെ അതൊക്കെ നമുക്കു ചുറ്റും അതൊക്കെ കലകൾ നമ്മൾ ജീവിതത്തെ സ്വാധിനിക്കുന്നത് കൊണ്ടാണ് നമുക്ക് അങ്ങനെയൊക്കെ തോന്നുന്നത് ഇപ്പോൾ ഒരാളുടെ ഒര് ഡാൻസ്സ് കണ്ട് കഴിഞ്ഞാലും നമുക്ക് അതിനോട് ഇഷ്ട്ടം തോന്നിയിട്ട് നമുക്കും അത് ചെയ്ത് നോക്കാമല്ലോ നമുക്ക് അങ്ങനെ ചെയ്യാമ്പറ്റുമോ എന്നുള്ള തോന്നലൊന്നും ഇപ്പം ഇല്ല കാരണം നമുക്ക് ചുറ്റുമുണ്ട് നമുക്ക് അത് പഠിക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ള സൗകര്യവും കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് ചുറ്റുമുണ്ട് ഇപ്പം ഒരു നല്ല നർത്തകനാവാനുള്ള ഗുണങ്ങളെന്തെന്ന് വച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ പഴയ കല എന്താണെന്നുള്ളത് നമ്മൾ നല്ലപോലെ മനസ്സിലാക്കണം നമ്മുട ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ഇതാണ് നമ്മള് ചെയ്യേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കിക്കഴിഞ്ഞാത്തന്നെ നമുക്ക് അതിലേക്ക് നല്ലൊരു നർത്തകനാവാനുള്ള കഴിവ് വരെ ആവുന്നതാണ്